നവജാത ശിശുക്കളെ ഏറ്റവും വൃത്തിയായിട്ടുള്ള സാഹചര്യത്തില് മാത്രമേ ഇതാക്കാൻ പറ്റുള്ളു കാരണം ഇപ്പോഴത്തെക്കാലത്ത് എങ്ങനെ നോക്കിയാലും ഇൻഫെക്ഷൻ മഞ്ഞ അങ്ങനെ പല അസുഖങ്ങളും വരുന്നുണ്ട് ഇമ്മ്യൂണിറ്റി പവറ് വളരെ കുറവാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് കൂടുതലും അപ്പോൾ നമ്മള് ചെറിയ ചൂട് രാവിലത്തെ സൂര്യപ്രകാശം മേത്ത് കൊള്ളിക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്യണം നല്ല ചെറു ചൂട് വെള്ളത്തില് കൊച്ചുങ്ങളെ കുളിപ്പിക്കണം പിന്നെ ഈർപ്പമുളള ഡ്രസ്സ് ഉടുപ്പിക്കരുത് ഈർപ്പമുളള ഡ്രസ്സ് ഇടീപ്പിച്ചാൽ കുട്ടികൾക്ക് വേഗം അസുഖം വരും പിന്നെ എത്ര ചൂടോ എത്ര തണുപ്പോ ആയിക്കോട്ടെ രണ്ട് നേരം മക്കളുടെ മേല് നന്നായിട്ട് ഇളം ചൂട് വെള്ളത്തില് മേലൊന്ന് തുടപ്പിക്കുകയാണെങ്കില് ആ കുട്ടികൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ നല്ല ഒരു ആറ് മാസം വരെ അമ്മയുടെ മുലപ്പാല് മാത്രം കൊടുക്കുക അതുകഴിഞ്ഞിട്ട് പിന്നെ കൊച്ചുങ്ങൾക്ക് മുത്താറിയില്ലേ മുത്താറി കൊടുക്കുക കാരണം കൊച്ചുങ്ങളൊരു വിവരവും ബോധവുമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുത്താറി കഴിക്കില്ല അതിനൊരുമാതിരി ചൊവയാണ് അങ്ങനെ കഴിക്കാൻ വഴിയില്ല അപ്പോൾ പറ്റാവുന്നത്രയും നാള് മുത്താറി കൊടുത്താൽ കൊച്ചിന് ഇമ്മ്യൂണിറ്റി പവറ് ഏറ്റവും നല്ല ഒരു ഇതാണ് മുത്താറി ആറു മാസങ്ങൾക്ക് ശേഷം മുത്താറി ചെറുതായിട്ട് കുറുക്കി കുറുക്കി കൊടുക്കാം അതുകഴിഞ്ഞാൽ അമൃതം പൊടി കിട്ടും അംഗൻവാടിയിൽ നിന്ന് അത് കൊടുക്കുക ഇപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല അസുഖം വരാതിരിക്കുകയും ചെയ്യും അവരത്യാവശ്യം നല്ല ഇതാവും ഏറ്റവും നല്ലത് വൃത്തിയായ സാഹചര്യം മൂത്രമൊഴിച്ചിട്ട് ആ സ്ഥലത്ത് കുട്ടീനെ കിടത്തരുത് മാറ്റി കിടത്തുക ഷീറ്റ് മാറ്റുക കുട്ടികളെ നല്ല നല്ല വസ്ത്രം ഉടുപ്പിക്കുക ഒര് ദിവസം മൂന്ന് ഡ്രസ്സെങ്കിലും മാറ്റുക പിന്നെ സ്നഗ്ഗിയൊക്കെ ഉടുപ്പിക്കുകയാണെങ്കില് ചൂട് വെള്ളത്തിലവിടെ തുടപ്പിച്ചിട്ടേ പിന്നെ ഉടുപ്പിക്കാൻ പാടുള്ളു വൃത്തിയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് അസുഖമൊന്നും വരാതെ നോക്കും പിന്നെ ഇമ്മ്യൂണിറ്റി പവറ് വളരെ കുറവാണ് മക്കൾക്ക് അത് നോക്കിയും കണ്ടും വേണം നമ്മള് പെരുമാറാൻ